ഹലോ ഇത് ആരാ ആ ഓക്കെ സാർ എന്തിന് ആണ് എന്താ വേണ്ടത് ആ തീർച്ച ആയിട്ടും മാം ഞങ്ങൾ ഇപ്പോ ഒര് ഏജൻസിയും കൂടി നടത്തുന്നണ്ട് ഞങ്ങൾ ഇവിടെ മെയിൻ ആയിട്ട് നോക്കുന്ന റിസോർട്ടുകൾക്ക് ടൂറിസ്റ്റ് റിസോർട്ടുകളിലേക്ക് ടൂറിസ്റ്റുകളെ എത്തിക്കുന്നത് ആണ് അപ്പം നമ്മുടെ കോഴിക്കോട് തന്നെ നമ്മുക്ക് ഒരു നമ്മുക്ക് ഒരു ഹോട്ടല് ആൻഡ് റിസോർട്ട് വരുന്നുണ്ട് സപ്താന്ന് ആണ് പേര് അവിടെ നമക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല നല്ല വിശ്വൽ ഒക്കെ ആയിട്ട് ഉള്ള നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു ഹോട്ടലാണ് നമുക്ക് ഉള്ളത് അതെ അതെ ആംബിയൻസ് ഒക്കെ അടിപൊളി ആണ് മാമിന് വേണേൽ ഞാൻ ഫോട്ടോസ് ഒക്കെ അയച്ച് തരാം മാമിന് ഇൻ്ററസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മാമിന് നിൽക്കാൻ വേണ്ടീട്ട് നമുക്ക് ഈ സ്ഥലം എടുക്കാം അതായത് ഫുഡ്ഡ് ഒക്കേന്ന് പറയുന്നത് മാമിൻ്റെ ഇഷ്ടത്തിന് അനുസരിച്ച് മാം ഓർഡർ ചെയ്യുന്ന ഫുഡ്ഡ് നമ്മൾ ഉണ്ടാക്കി തെരുന്നതാണ് മാമിന് എപ്പഴൊക്കെ എന്തൊക്കെയാ വേണ്ടേന്ന് ഉള്ള ലിസ്റ്റ് കാര്യങ്ങൾ ഒക്കെ നമുക്ക് ചെയ്താമതി അത് എല്ലാം നമ്മള് ലാസ്റ്റ് പേയ്മെൻറ്റ് ആയിട്ട് ആണ് വാങ്ങുന്നത് ഇപ്പോ അഡ്വാൻസ് പേയ്മെൻറ്റ് ആയിട്ട് നമ്മള് കയറുമ്പോൾ വാങ്ങും അത് കഴിഞ്ഞ് പിന്നെ ഫൈനൽ ആയിട്ടും ആണ് വാങ്ങുന്നത് ഓക്കെ ഓക്കെ മാം എന്നാ വെരുന്നേന്ന് അറിയിച്ചാ മാമിന് പോവാൻ ഉള്ള കാര്യങ്ങൾ ആണേലും എല്ലാം നമ്മള് തന്നെ അറേഞ്ച് ചെയ്യുന്നതാണ് ഇവടെ ഇപ്പം നല്ല ഹോട്ടലിന്ന് പറയാൻ ഉള്ളത് ഇപ്പം കോഴിക്കോടിലെ വെച്ച് നോക്കുവാണെങ്കിൽ ഏറ്റവും ഫേമസ് ആയിട്ട് ഉള്ളത് നമ്മുടെ തന്നെ ആണ് അതുപോലെ രണ്ട് മൂന്ന് എണ്ണം ഇനി ഇപ്പോൾ വേറെ വേറെ റിസോർട്ടുകളെ കുറിച്ച് അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം അതിൻ്റെ ഫോട്ടോസ് അയച്ചു തരാം അതിൽ നിന്നും മാമിന് ഏതാ ബെറ്റർ നോക്കീട്ട് ചൂസ് ചെയ്താൽ മതി ഫാമിലീന്ന് പറയുമ്പോ എത്ര പേർസൺസ് ഇണ്ടാവും മാഡം ഓ മാം പത്ത് പതിനൊന്ന് പേര് അല്ലേ അത് ഒന്നും ഒരു ഇഷ്യൂ അല്ല മാമിന് എത്ര പേരെ വേണേൽ കൊണ്ടുവന്നോ എത്ര ദിവസത്തേക്കാന്ന് ഉള്ള ഒരു ഇത് നമുക്ക് പറഞ്ഞാൽ മതി മാമിന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ എല്ലാം ചെയ്ത് തരുന്നത് ആണ് മാം ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് എന്നെ വിളിച്ചത് കൊണ്ട് അവിടെ ഡിസ്കൗണ്ട് മാമിന് എന്തായാലും ലഭിക്കുന്നത് ആണ് അപ്പോൾ മാമിന് വേണമെങ്കിൽ എല്ലാം ഞാൻ അറേഞ്ച് ചെയ്ത് തരുന്നത് ആണ് ആ മതി മതി മാം ഈ മന്ത് തന്നെ എന്തായാലും വെരോ ആണോ ഓക്കെ മാം എന്തായാലും മാമിന് വേണ്ടീട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ അറേഞ്ച് ചെയ്ത് ഇരിക്ക ഈ അറേഞ്ച് ചെയ്ത് തരുന്നത് ആയിരിക്കും അപ്പോൾ മാമിന് എന്തൊക്കെയാണ് വേണ്ടേന്ന് ഉള്ള നോക്കി പറഞ്ഞ് തന്നാൽ മതി ഞാൻ ഇപ്പോൾ നമ്മുടെ റിസോർട്ടിൻ്റെ മാത്രം അല്ല ഈ കോഴിക്കോടില് ഫേമസ് ആയിട്ട് ഉള്ള എല്ലാ റിസോർട്ടിൻ്റെയും ഫോട്ടോസ് അയച്ച് തരാം മാമിന് അതിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാന്ന് നോക്കീട്ട് സെലക്ട് ചെയ്താൽ മതി നമ്മുടെ റിസോർട്ട് ആണെങ്കിൽ പറഞ്ഞ ഓഫറുകൾ ഒക്ക അവിടെ ഉണ്ട് ഓക്കെ മാം ശരി എന്നാൽ താങ്ക്യൂ മാമിനെ ഈ നമ്പറില് കോൺടാക്ട് ചെയ്താൽ മതിയോ ഓക്കെ മാം ഇനി അതിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്തേക്കാം ഓക്കെ താങ്ക്യൂ